ഞാന് താമസിക്കുന്ന സ്ഥലത്ത് എന്റെ ഈ സ്ഥലങ്ങളിൽ ആളുകള്ക്കൊരുപാട് പത്രം വായിക്കാന് കഴിയുന്ന ഒരു സ്ഥലം ഉള്ളതായിട്ടെനിക്കറിവില്ല അതോ എന്റെ അറിവിന്റെ പരിമിതിക്കുറവു മൂലമാണോ അതോ ഇവിടെയില്ലാത്തതാണോ എന്നെനിക്കറിയില്ല പക്ഷെ അങ്ങനൊരു സ്ഥാപനം അല്ലെങ്കില് അങ്ങനെയൊരു സ്ഥലം ഉണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യവും പിന്നെ മറ്റുള്ളവര്ക്ക് അറിവ് വര്ദ്ധിപ്പിക്കാനായിട്ട് ഉതകുന്നതും ആയിരിക്കും എന്നാണ് എന്റെ വീക്ഷണം പിന്നെയങ്ങനെയൊരു സ്ഥാപനം ഉള്ളപ്പോള് അല്ലെങ്കില് അങ്ങനെയൊരു സ്ഥലം ഉണ്ടെങ്കില് മറ്റുള്ളവര്ക്ക് ഏകാന്തത ഉണ്ടാകാതെ അവര്ക്ക് പരസ്പരം കാണുവാനും സംസാരിക്കുവാനും തങ്ങളുടെ സൗഹൃദങ്ങള് പങ്കുവെയ്ക്കുവാനും തങ്ങളുടെ വിഷമങ്ങൾ കുറച്ചെങ്കിലും ലഘൂകരിക്കുവാനുമൊക്കെ അതുവഴി ആയിട്ട് ഇങ്ങനെയുള്ള ഈ ഈ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ലൈബ്രറികൾ സഹായിക്കും അതുപോലെ നമ്മളുടെ അറിവുകൾ ഷെയറ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലവും കൂടെയാകും ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ലൈബ്രറിയോ പത്രങ്ങൾ പത്രം വായിച്ച് അത് ചര്ച്ച ചെയ്യുമ്പോൾ നമ്മുടെ അറിവുകളും ഷെയറ് ചെയ്യാനായിട്ടും നമ്മുടെ നമുക്കറിയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിക്കുവാനായിട്ടും അതുപോലെ പത്രത്തിലൊക്കെ എന്തേലും വിവരങ്ങളുണ്ട് എന്തെങ്കിലും ജോലി സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ വിട്ടുപോയ കണ്ടുകഴിഞ്ഞ് ചിലപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ അപ്പം ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ അടുത്തുള്ളവരത് പറയുമ്പോൾ നമുക്ക് കൂടുതലതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസിലാകണം എന്നില്ല വായിച്ചുകഴിഞ്ഞാല് തന്നെ അത് ഏതര്ത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസിലാകണമെന്നില്ല അപ്പം ഇത് നല്ല രീതിയില് വായിക്കുവാനും നന്നായിട്ട് മനസ്സിലാക്കുവാനും അതിനേക്കാള് ഉപരിയായിട്ട് ഏറ്റവും ഉപരിയായിട്ടെന്നു പറയുകയാണെങ്കില് മനുഷ്യന് എന്നുപറയുന്നതൊരു സമൂഹജീവിയാണ് അത് സമൂഹത്തില് ജീവിക്കേണ്ടവനാണ് സമൂഹമായിട്ട് അടുത്തിട ഇടപഴകേണ്ടവരാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് മനുഷ്യരൊരുപാട് പിന്നോട്ട് പോകുന്നുണ്ട് അതായത് സ്വന്തം വീട് സ്വന്തം മൊബൈല് സ്വന്തം കമ്പ്യുട്ടറ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മനുഷ്യന് ഉള്വലിയുന്നുണ്ട് ഇതിനെ ഒക്കെ ഓവര്കം ചെയ്ത് പുറത്തോട്ട് വരുവാനും മനുഷ്യന്റെ സൗഹൃദങ്ങള് പങ്കുവെയ്ക്കുവാനും സ്നേഹം പങ്കുവെയ്ക്കുവാനും അവന്റെ അറിവുകള് പങ്കുവെയ്ക്കുവാനും ഒക്കെയുള്ളൊരു വേദി ആയിട്ട് ലൈബ്രറികൾ മറന്നു മാറും പൊതുവായിട്ടുള്ള പബ്ലിക് സ്ഥലങ്ങള് പത്രങ്ങൾ വായിക്കാനായിട്ട് ഉള്ള പബ്ലിക് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കില് ആ അങ്ങനെയുള്ള സാഹചര്യങ്ങള് ഉണ്ടെങ്കില് ഇങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെന്റും ഒരു മാനസിക ശാരീരിക അത്മീയമായിട്ടു ഉല്ലാസത്തിനുള്ള വേദിയായി അത് മാറും എന്ന് ഞാന് വിശ്വസിക്കുന്നു തീര്ച്ചയായും ഇങ്ങനെയൊരു സ്ഥാപനങ്ങൾ ഇങ്ങനെയൊരു സ്ഥലങ്ങളില് ഇല്ല എന്ന് മനസിലാക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങള് ഉണ്ടാക്കാനായിട്ടുള്ള നടപടികള് അവിടുത്തെ സര്ക്കാരും അവിടെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ തലങ്ങളില് നിന്നുതന്നെ അവിടുന്ന് ഡെവലപ്മെന്റിന് ഉള്ള നടപടികള് സ്വീകരിക്കേണ്ടതാണ് സ്ഥാപനങ്ങളോട് ചേര്ന്ന് ഇപ്പോൾ പള്ളി അല്ലെങ്കില് അമ്പലം അല്ലെങ്കില് മോസ്ക്ക് അതിനോടൊക്കെ ചേര്ന്ന് നിന്നാണ് ചേര്ന്നുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ലൈബ്രറികൾ പ്രവര്ത്തിക്കുന്നതെങ്കില് കൂടുതലാള്ക്കാര്ക്ക് വരുവാനും കൂടുതല് ആള്ക്കാര്ക്ക് കൂടുതല് ആള്ക്കാര് അതിനോട് ചേര്ന്നൊരു അല്ലെങ്കിൽ വേറൊരുതരത്തില് പറയുകയാണെങ്കിൽ അതിനോട് ചേര്ന്നൊരു കളിക്കളം ഉണ്ടെങ്കില് കൂടുതലും ആള്ക്കാർ വരാനും അവര്ക്ക് ആ ഒരു സാധ്യത ലൈബ്രറി എന്നുപറയുന്ന ആ സാധ്യത പ്രയോജനപ്പെടുത്തുവാനായിട്ടും സാധിക്കും എന്ന് ഞാന് വിശ്വസിക്കുന്നു